ഈ കൃഷിയുമായി ബന്ധപ്പെട്ടു പറയുകയാണെങ്കിൽ കൃഷിയുടെ ഒരു വിളകളെയൊക്കെ സ്വാഭാവികമായിട്ടും കീടങ്ങളായാലും കാലാവസ്ഥാ വ്യതിയാനങ്ങളായാലും വളരെ വലിയ രൂപത്തിൽ തന്നെ അത് അതിനെ ബാധിക്കും അതിൽ കീടങ്ങൾ ഒരു വരിധി വരെയൊക്കെ നമുക്കെന്താക്കാൻ പറ്റും അതിനെ തടയാൻ പറ്റും കാരണം കീടങ്ങൾ എന്താണു പറയുക തടയാൻ വേണ്ടി നമുക്ക് അതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങള് ഉപയോഗിക്കാന് ഇന്ന് വളരെ സൗകര്യമായ ഒരുപാടു സൗകര്യമായി ഒരുപാട് വസ്തുക്കളുണ്ട് പക്ഷെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ അങ്ങനെയല്ല കാലാവസ്ഥാ വ്യതിയാനങ്ങൾ സംഭവിക്കുമ്പോള് നമുക്കു വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടാവുക ഉദാഹരണത്തിന് പറയുകയാണെങ്കില് ഇപ്പോള് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം അതിലപ്പോള് ഒരുപാട് വിളകള് വിളയ്ക്കു പുറമേ ഒരുപാടു നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും വിളകളുടെ വിഷയത്തില് ഒരുപാടു നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോള് ഈ വാഴകൃഷി ചെയ്യുന്നവർക്കൊക്കെ ഈ വെള്ളം പോലെയുള്ള കാര്യങ്ങള് വളരെ വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കുക കാറ്റാവട്ടെ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കാലാവസ്ഥാവ്യതിയാനം കൊണ്ട് ഈ കൃഷികളിൽ നമുക്കു സംഭവിക്കുന്നുണ്ട് അപ്പോള് അത് ഒരു വലിയ കൃഷി ചെയ്യുന്ന ആളുകൾക്കതൊരു വലിയ നഷ്ടമാണ് ഉണ്ടാക്കുക അത് പ്രത്യേകിച്ചും ഇന്നു കണ്ടുവരുന്ന കൃഷി സ്ഥലങ്ങളിന്നു കൃഷി ചെയ്യുന്ന ഇന്നു കണ്ടുവരുന്നൊരു രൂപത്തിലാണെങ്കില് വളരെ വലിയ നശനഷ്ടങ്ങളാണ് ഇന്ന് ഉണ്ടാവുക കാരണം കൃഷി ചെയ്യാൻ വേണ്ടി അവർ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തതിനു ശേഷം അവർക്കുണ്ടാകുന്ന ഇൻവെസ്റ്റമെന്റൊക്കെ ചെയ്തതിനു ശേഷം അവർക്ക് ഇതുപോലെയുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കാരണം ഉണ്ടാകുന്ന നഷ്ടങ്ങൾ അതു വളരെ വലിയ നഷ്ടമായിരിക്കും അത് പിന്നെ ഒരുപാട് കർഷക ആത്മഹത്യ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതിന് ഈ ഒരു പൂർണ്ണമായും കാലാവസ്ഥാ വ്യതിയാനമൊന്നുമല്ല എങ്കിൽ ഇതൊരു ചെറിയ ഒരു സാധ്യതയാണ് ഇന്ന് ഒരുപാടിപ്പോള് വയനാട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് കൃഷികൾക്കു മറ്റേ കാലാവസ്ഥാ വ്യതിയാനം കാരണമുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരുപാട് സംഭവിക്കുന്നുണ്ട് അതു കാറ്റായിട്ടും മഴയായിട്ടും വെള്ളപ്പൊക്കം ഒക്കെയായിട്ട് അതു വളരെ വലിയ രൂപത്തിൽ തന്നെ സംഭവിക്കുന്നതു കൊണ്ട് അതു കൃഷി ചെയ്യുന്ന കർഷകർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് കീടങ്ങൾ അതു നശിപ്പിക്കാനുള്ള ഒരു പുതിയ തരത്തിലുള്ള ഒരുപാട് സോഴ്സുകൾ നമ്മളെ കയ്യിലുള്ളതുകൊണ്ട് അതൊരു അത്ര വലിയ പ്രശ്നമല്ല എങ്കിലും അതൊരു പ്രശ്നം തന്നെയാണ്